എൻ്റെ നേട്ടം എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പം എല്ലാം നല്ലോണം പഠിക്കാൻ പറ്റി ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടന്നു അതൊക്കെ തന്നെ എൻ്റെ വലിയ കാര്യമാണ് എൻ്റെ അമ്മ എന്നെ കഷ്ടപ്പെട്ടാണ് പഠിപ്പിച്ചത് ഞാൻ അഞ്ചാം ക്ലാസ് വരെ ഇവിടെ പഠിച്ചു ആറ് ടു ഞാൻ പ്ലസ്ടു വരെ ഞാൻ ദ്വാരകയെന്ന് പറഞ്ഞൊരു സ്കൂളിൽ പഠിച്ചു എനിക്കെല്ലാം അത്യാവശ്യം നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു അതായത് എല്ലാ വിഷയത്തിനും നല്ലോണം പാസ്സായി അത്യാവശ്യം നല്ലോണം പഠിക്കുകയും ചെയ്യുകയായിരുന്നു എന്നുവച്ച് എന്നാലും ഓവർ അധികം പഠിക്കില്ല ആ ഒരു ഇതിൽ മീഡിയം ലെവൽ ആയിരുന്നു ഒരുപാട് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു എന്നാലും എല്ലാ കാര്യത്തിനും നല്ലോണം പഠിച്ചു പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് ഡിഗ്രി പഠിക്കാൻ പറ്റി പിന്നെ പി ജി പഠിച്ചു എല്ലാം ഏറ്റവും വലിയ സന്തോഷം എന്നു പറഞ്ഞാൽ ഏറ്റവും വലിയ സന്തോഷം ഏറ്റവും വലിയ നേട്ടം എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ ഞാൻ പാസ്സായിട്ടുണ്ട് എല്ലാം അത്യാവശ്യം നല്ല മാർക്കിൽ പാസ്സായിട്ടുണ്ട് അതെനിക്ക് എന്താ പറയുക ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് എൻ്റെ ഏറ്റവും വലിയ നേട്ടമായിട്ടും ഞാനത് വിചാരിക്കുന്നു